ഇത് ഷോപ്പിങ് ഫ്ലോമ്സ് ഇത് ചായക്കടയല്ലേ ക്ലാരമ്മേടെ ചായക്കടയല്ലേ അതിരംപുഴയിലുള്ള ഞങ്ങളുടെ വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ടോ അവിടെ അവിടെ എന്നാക്കെ ഉണ്ട് കഴിക്കാൻ ഫാമിലിക്ക് വന്നാൽ ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആണോ ആ എന്നാൽ ഞങ്ങൾക്ക് പൊറോട്ട മാത്രമുള്ളോ ബിരിയാണി വല്ലതും ഉണ്ടോ ഇപ്പോൾ സമയം ഒന്നരയായി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വല്ലോം ഊണോ ബിരിയാണിയോ വല്ലതും ഉണ്ടോ ബിരിയാണി എന്നാൽ ബിരിയാണിയാണ് ചിക്കനാണോ ബീഫാണോ ആ എന്നാൽ ഞങ്ങൾ നാല് പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കിക്കോ ആ പിന്നെ ഞങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് ഈ വെളിച്ചെണ്ണ പലഹാരം സ്നാക്സൊക്കെയില്ലേ ആ ഉഴുന്നുവട ഒരു അഞ്ച് എണ്ണം പരിപ്പുവട ഉള്ളിവട എല്ലാം അയ്യ അയ്യഞ്ചെണ്ണം വീതമെടുത്തോ ആ മതി വന്നു കഴിഞ്ഞ് പാക്ക് ചെയ്താൽ മതി ചൂടായിട്ട് വേണം ആ പക്ഷേ സ്പെഷ്യൽ വേറേ വല്ലതും ഉണ്ടോ അല്ല ഈ ബിരിയാണി കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ എൻ്റെ മോൾ ബിരിയാണി തിന്നത്തില്ല പിന്നെ ചോറാ അതിന് സ്പെഷ്യലായിട്ട് വല്ല മീൻ വറുത്തതോ ആ എന്നാൽ ശരി ഞങ്ങൾ വരുന്നു ഉടനെ വരുന്നു ആ പിന്നെ ബാത് റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ അതിനകത്ത് പെൺപിള്ളേരാണ് അപ്പോൾ അവർക്ക് അതിന് പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആണല്ലേ നല്ല വൃത്തീം വെടിപ്പുമാണല്ലോ എൻ്റെ മോൾ ഇച്ചിരി വൃത്തിയുള്ള ആളാണ് അല്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കത്തില്ല അതുകൊണ്ട് വൃത്തിയൊക്കെയുണ്ടല്ലോ ബിരിയാണിക്ക് എന്നാ വിലയാണ് ആ അത് കുറവാണല്ലോ ഊണിന് ആണല്ലേ ആ പിന്നെ ക്ലാരമ്മേടെ മോൻ വന്നായിരുന്നോ അവിടെ പിന്നെ ഗൾഫീന്ന് ഒത്തിരി നാളായല്ലോ കണ്ടിട്ടൊക്കെ

ആ ഞങ്ങളിതാ എത്തിയേ എത്താറായി കേട്ടോ ആ പിന്നെ ആ ഒത്തിരി നാളായില്ലേ കണ്ടിട്ട് നമ്മളാ കോട്ടയത്തെ വിശേഷങ്ങളൊക്കെ മറക്കാൻ പറ്റുന്നില്ലാട്ടോ ആ എങ്ങനുണ്ട് കച്ചവടമൊക്കെ നമ്മൾ ഇവിടുന്ന് നാട്ടീന്ന് പോയിക്കഴിഞ്ഞ് കച്ചവടമൊക്കെ ഇട്ടിട്ട് പുരോഗമിച്ചോ ആണോ അതെ ജോയിയാണോ കൂടെ ആണോ മോളെ കെട്ടിച്ചായിരുന്നോ മോൾ ഇന്നാൾ അയർലണ്ടിലൊക്കെ പോകണം എന്ന് പറഞ്ഞു പോയോ ആണോ ആ എൻ്റെ മോൾ പോയായിരുന്നു കൊച്ചറിഞ്ഞായിരുന്നോ അല്ല അവിടെ കല്യാണമൊക്കെ അടുത്തു വരുവാണ് ഞാൻ കൊച്ചിനെ വിളിക്കാനും കൂടെ അങ്ങോട്ട് വരുന്നത് ആ ഏ ബെന്നിച്ചനെ കൂടെ നിർത്തിയോ ബെന്നിച്ചൻ എവിടുന്നാണ് അവിടുന്നെങ്ങനാണ് വരുന്നത് ഭയങ്കര ദൂരമല്ലേ ആ എൻ്റെ മോളുടെ കല്ല്യാണമൊക്കായി ഞാനൊന്ന് വിളിക്കാനും കൂടാണ് വരുന്നത് ഓക്കെ ഓക്കെ ഓക്കെ നേരിട്ട് കാണാവേ ശരി ഓക്കെ